ചുവർച്ചിത്രങ്ങൾ പിന്നെ എല്ലാവരും പിന്നെ അമ്പലച്ചുവരുകളിലും പുറത്തും വന്നിട്ടുണ്ട് കാരണം എന്തെന്നു വെച്ചാൽ ആ കൂടുതൽ ഒരു അമ്പലത്തിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് പിന്നെ ഇപ്പോൾ വീടുകളിലാണെങ്കിൽപ്പോലും വീടിൻ്റെ ഒരു പുറമേയുള്ളൊരു ഭംഗി അതൊരു ഒരു പ്രത്യേകതര ഒരു ഫീലാണ് കാണുമ്പോൾ പിന്നെ ചുമർച്ചിത്ര കലാകാരന്മാർക്കും അതൊരു പിന്നെ സഹായകമാണ് അല്ലെങ്കിൽ അവർക്കൊരു അവരെ ആ കലാകാരന്മാരെ അംഗീകരിക്കുന്നവർ ഇതാണത് പിന്നെ അമ്പലങ്ങളിൽ പിന്നെ ഈ ചായങ്ങൾ പലതരം ചായങ്ങൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നവർ അങ്ങനൊയൊക്കെയുണ്ട് പിന്നെ മതിലുകളിലേക്കും വീടുകളിൽ അതൊരു പ്രത്യേകതരം ഒരു ഭംഗിയാണ് വീടുകളിൽ ചിത്രങ്ങൾ വരുന്ന അങ്ങനെയൊക്കെയാണ് അമ്പലങ്ങളിൽ അത് കൂടുതൽ ഇപ്പം കണ്ടുവരുന്നുണ്ട് ചുമർച്ചിത്രങ്ങൾ